എനിക്ക് ഇപ്പോൾ താല്പര്യമുള്ള ബൈക്കിംഗ് ലോകത്തെ ഏറ്റവും വലിയ ട്രെന്ഡ് അതായത് നമ്മുടെ കൂട്ടുകാരുമായി എവിടെയോ ദൂരെ എവിടെ എങ്കിലും പോയിട്ട് നമ്മള് പോയ ഈ ചിത്രങ്ങള് പങ്കുവയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് എന്നാൽ വാഗമണ് റൂട്ടാണ് കാരണം അത് നമുക്ക് വളരെയേറെ സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് ആ റൂട്ടിലൂടെ പോകാന് സാധിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലക്ഷ്യസ്ഥാനം ഇല്ലിക്കല് കല്ലാണ് ഞങ്ങള് സാധാരണ ഇല്ലിക്കല് കല്ല് രാവിലെ കേറിയിട്ട് ഉച്ചയോടുകൂടിയാണ് വാഗമണ് റൂട്ട് ഇറങ്ങുന്നത് ആ കാരണം ആ സമയത്ത് റൂട്ടിലെ തിരക്ക് കുറയുകയും നമുക്ക് എല്ലാ എന്നാൽ അതായത് വാഗമണ് റൂട്ടുകളിലെ എല്ലാ വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങി നമുക്ക് എല്ലാം കാണാന് സാധിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചക്ക് ഇറങ്ങുന്നത് ഇല്ലിക്കല് കല്ല് രാവിലെ കയറുന്നത് രാവിലെ കയറുമ്പോൾ നല്ല തണുപ്പും അതാണ് ഏറ്റവും പിന്നെ നല്ല സമയം ഇല്ലിക്കല് കല്ല് കയറാന്